പ്രധാനമല്ലെങ്കിലും ചില ഭാഷകൾ പഠിക്കൽ നിർബന്ധമാണ് കാരണം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ നിർബന്ധമാണ് കമ്പൽസറി സ്റ്റഡി എന്നുള്ള രീതിയിലാണ് പിന്നെ എന്തുകൊണ്ട് ആവശ്യമില്ലാത്ത ഭാഷകൾ ഒന്നും പഠിപ്പിക്കുന്നില്ല ഒരു തുടക്കമിടുന്നു സ്കൂളുകൾക്കാർ എന്ത് കൊണ്ട് തുടക്കമിട്ട് പോകുന്നു എന്നുള്ളതിന് ഉത്തരം തീർച്ചയായും തരാൻ പറ്റാത്ത രീതിയിലാണ് തീർച്ചയായും ഇംഗ്ലീഷും മലയാളവും ഒരു മലയാളം ഹിന്ദിയും

മലയാളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ അനവധി ഭാഷകൾ നിരവധി ഭാഷകൾ പത്തും പതിനഞ്ച് ഭാഷകൾ പഠിക്കുന്നത് വെറുതെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും യാത്രക്കാരനാണെങ്കിൽ അവൻ ഒരു യാത്ര പ്രേമിയാണെങ്കിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കൃഷിക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പോട്ടെ യാത്രക്കാരൻ അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പ ഭാഷകൾ പഠപ്പിക്കുന്ന പഠിക്കുന്ന അവർക്കും ഉപകാരമാണ് തീർച്ചയായും അങ്ങനെ പല രീതിയിൽ പല കോലത്തിലും അവർക്ക് ഉപകാരപ്പെടുന്നത് നമുക്ക് നഗ്നമായ സത്യമാണെന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പഴത്തെ കാലങ്ങൾ തീർച്ചയായും ഇപ്പം ഭാഷകൾ എഴുതാൻ പഠിക്കേണ്ടതില്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഒക്കെ ആപ്പുകളൊക്കെ ഉണ്ടായത് കൊണ്ടും ഭാഷകൾ പറയാൻ പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കമ്പൽസറി ആ അത്യാവശ്യമായ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്